ഹലോ എക്സ് റെസ്റ്റോറൻറ്റല്ലെ ഞാനിവിടെ കോഴഞ്ചേരീന്നാണ് വിളിക്കുന്നത് അപ്പം എനിക്ക് എന്റെ വീട്ടിലൊരു ചെറിയൊരു ടീ പാർട്ടി പോലെ അറേഞ്ച് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട് അപ്പം അതിലേക്ക് വേണ്ടീട്ടെനിക്ക് കുറച്ച് വടകൾ വേണം അപ്പം പരിപ്പുവട അങ്ങനുള്ള ബജ്ജി ഐറ്റംസാണ് വേണ്ടത് അതുണ്ടാവുവല്ലൊ അല്ലേ ആ അപ്പോൾ ഒരെണ്ണത്തിന്റെ റേയ്റ്റെങ്ങനെയാണ് വരുന്നത് പ്ലേയ്റ്റായിട്ടാണോ ഒരു സെറ്റായിട്ടാണോ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് പറയണം അപ്പം ഞങ്ങളിപ്പം ഒരു നാൽപ്പത്തഞ്ച് പേരായിരിക്കുമുണ്ടാവുന്നത് അപ്പോൾ ഒരാൾക്ക് രണ്ട് കടി എന്നുള്ള രീതീലെടുത്തോളൂ അല്ലെങ്കിൽ അൻപത് എന്ന് കൂട്ടിക്കോളൂ നൂറ് കടി ആക്കിക്കോട്ടെ അപ്പം അതിന്റെ വിലയക്കെ എത്രയാണ് വരുന്നത് എന്നുള്ളതൊന്ന് പറയണം പിന്നെ ഈ കുറച്ച് പ്രായമായ ആളുകളാണ് വരുന്നത് സൊ എനിക്കൊത്തിരി എണ്ണയിൽ പൊരിക്കണ്ട ഒത്തിരി എണ്ണ കുതിർന്ന പലഹാരങ്ങൾ താൽപ്പര്യവില്ലാട്ടൊ അതൊന്ന് പറഞ്ഞിട്ട് പറയണെട്ടൊ